ഇപ്പോൾ എല്ലാ ആളുകളും വിരുന്നിനു ഒത്തു ചേരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ യുവതിയും യുവാവും കൂടെ കൂടിയിട്ടാണ് കൂടുതലായിട്ടും വിരുന്നുകളിലേക്ക് ഒക്കെ പോകുന്നത് അപ്പം അവര് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയെല്ലാരും എല്ലാവരും വന്ന് വന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളും കാര്യങ്ങളും ഭക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അതില് നിന്ന് അവര് ഒരു പങ്ക് കഴിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും വന്നിട്ട് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഒത്തുകൂടുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണത്തിനാണ് മെയിനായിട്ട് നമ്മള് നമ്മുടെ കുടുംബക്കാര് എല്ലാവരും ഇപ്പം എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വന്ന് എല്ലാവരും ഒരുമിച്ചു ഒരു വീട്ടില് കഴിയുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും കല്യാണ സമയങ്ങളിലാണ് പിന്നെ അല്ലാണ്ട് പിന്നെ ഒത്തുകൂടുക കൂട്ടായ്മകള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ സമൂഹത്തില് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണ വീട്ടില് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഇപ്പം മരി ഒരു മരണം നടന്നു കഴിഞ്ഞാല് എല്ലാവരും വരും പിന്നെ പെല കഴിയുന്നവരെ നമ്മടെ കുടുംബക്കാര് വീട്ടിൽ നിന്ന് അങ്ങനെ പോവുകയോ അങ്ങനത്തെ കാര്യങ്ങള് ഒന്നും ചെയ്യില്ല അപ്പം അങ്ങനെയും ഒത്തുകൂടുന്ന ആള്ക്കാരുണ്ട് കൂടുതലായിട്ടും ഈ വിരുന്നിനു വരുന്ന ആള്ക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലര് ഇപ്പം വീട് കാണാനും അങ്ങനത്തെ കാര്യങ്ങള്ക്കൊക്കെ കൂടുതലായിട്ടും വിരുന്നിനും കാര്യങ്ങള്ക്കൊക്കെ അപ്പം അങ്ങനെ ഒത്തുകൂടുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളവര്